ആ ഞാൻ വയനാട്ടിൽ ഒരു ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇല്ലേ ആ അവിടെ ഒരു ട്രക്കിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു നാല് പേർ കൂടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീ ഞാൻ ഈ അടുത്ത ആഴ്ച അതായത് രണ്ടാം തീയതി

നാല് പേർ ഒരാൾക്ക് അറുനൂറ് രൂപ അല്ലേ ഇല്ല ട്രക്കിംഗ് അപ്പം ജീപ്പ് ആണോ അതോ ബസ് ആയിട്ടാണോ വരുന്നത് രണ്ടും കയ്യും അപ്പം ബസ്സിൻ്റ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡിൽ അല്ലേ ആ ആ ജീപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ ജീപ്പ് ആയിരിക്കും അല്ലേ

ഇപ്പം സീസൺ ആണോ അതിന്റെ കാര്യങ്ങൾ ആ ആ ആ ആ ഞങ്ങൾ അപ്പം എറണാകുളത്തുനിന്ന് വരുവാണ് അപ്പം ആ എറണാകുളത്തുനിന്ന് വരുവാണ് അപ്പം എന്ന് നമുക്ക് ഏത് സമയത്താണ് അങ്ങോട്ട് കയറാൻ പറ്റുക അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ദാ അവിടെ കിട്ടും അല്ലേ അപ്പം ഫുഡ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുമോ അങ്ങോട്ട് ഉള്ളിലോട്ട് ആ ആ അറേഞ്ച് ചെയ്യും അല്ലേ അപ്പം പെർ ഹെഡ് എത്രയാണ് വരുന്നത് അറുനൂറോ ആ ആ ഫാമിലി അല്ല ഞങ്ങൾ നാല് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നതാണ്

ആ ഞാൻ ട്രെയിനിനാണ് വരുന്നത് ആ കോഴിക്കോട് നിന്ന് നിങ്ങൾ പിക്ക് ചെയ്യണം അതിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആ ശരി ശരി ഇപ്പം നം വന്നാൽ നമുക്ക് കാണാൻ ഉള്ളിൽ കയറാൻ പറ്റില്ലേ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് ആ ആ അപ്പം ഞാൻ നിങ്ങളെ വിളിക്കാം ആ ആ പറയാം പറയാം ആ ആ ശരി ആ ആ ഞാൻ വിളിച്ച് പറയാം